ആ ചേട്ടാ പറയൂ എന്താണ് ആവശ്യം എങ്ങനെ ആണ് അതെ അല്ലേ അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ പ്ലോട്ടുകളും ഉണ്ട് വീടുകൾ ഒക്കെ ഉണ്ട് വില്ലാസ് ഒക്കെ ഉണ്ട് അപ്പം എങ്ങനെ ഉള്ള വീടാണ് നോക്കുന്നത് എന്താണ് ഒരു ഐഡിയ എന്തെങ്കിലും ഉണ്ടോ മനസ്സിൽ ഇപ്പോൾ അതെ ഒരു ആയിരത്തിയഞ്ഞൂറ് ആ ആയിരത്തിന് മുകളിൽ നോക്കാം അല്ലേ അപ്പോൾ നമുക്ക് കുറേ സ്ഥലത്ത് ഉണ്ട് ഇപ്പോൾ പാലക്കാട് ഉണ്ട് ടൗൺ ഏരിയയിൽത്തന്നെ ഉണ്ട് അതേപോലെ കുഴൽമന്ദം കോട്ടായി അങ്ങോട്ട് വടക്കാഞ്ചേരി ആലത്തൂർ ആ ഭാഗത്തൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെ ഉള്ള ഏത് ഭാഗത്ത് ടൗൺ ഏരിയയിൽത്തന്നെ നോക്കണോ അതോ വില്ലേജ് ഏരിയ ഉൾ ഏരിയയിലോട്ടാണോ നോക്കുന്നത് എങ്ങനെ ആണ് അത് നോക്കുന്നത് ഉൾ ഏരിയയിൽ ആ റോഡ് സൗകര്യം ഉണ്ടാവും പക്ഷേ വില്ലേജ് അതിന് ഏരിയ ആയിരിക്കും പെട്ടെന്ന് ആ ബസ്സ് സൗകര്യം ഉള്ള റൂട്ട് ആണ് പക്ഷേ ഉൾ ഏരിയയിലേക്ക് ഗ്രാമ പ്രദേശങ്ങൾ ആണോ അതോ ടൗൺ ഏരിയ ആണോ നോക്കുന്നത് അപ്പോൾ ആ ആ അപ്പം ടൗൺ ഏരിയയാണ് നോക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കുഴൽമന്ദം ഹൈവേന്റെ സൈഡ് തന്നെയാണ് ഒരു വീട് ഉള്ളത് അത് കുഴപ്പമില്ല പിന്നെ ഉള്ളത് ചന്ദ്രനഗർ ആണ് ചന്ദ്രനഗർ പറഞ്ഞാൽ മെയിൻ ടൗൺ ഏരിയയിൽ തന്നെ ആണ് അത് ഉള്ളത് അവിടെ പറഞ്ഞാൽ കുറച്ച് റേറ്റ് കൂടും അവിടെ ഇപ്പം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് ലക്ഷം സംത്തിംഗ് വരുന്നുണ്ട് അവിടെ ഇരുപത് ഇരുപത് ലക്ഷത്തിന് അടുത്ത് വരുന്നുണ്ട് ആയിരത്തിയഞ്ഞൂറ് ആയിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടിന് ടൗൺ ഏരിയയിൽ ആവുമ്പോൾ പിന്നെ സ്ഥലത്തിന്റെ എത്ര സ്ഥലം എന്തെങ്കിലും നോക്കുന്നുണ്ടോ ചുറ്റും പല ചെറിയ രീതിയിൽ ഉള്ള ചെടികൾ ഒക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഉള്ള പ്ലോട്ട് ആണോ നോക്കുന്നത് ആ ഇപ്പം സ്ഥലവും കൂടി നോക്കാണേൽ നമുക്ക് ഒരു ഒരു നാൽപത് ലക്ഷം സംത്തിംഗ് വരും സ്ഥലവും വീടും കൂടി നോക്കുകയാണെങ്കിൽ അപ്പം അവിടെയും ഇവിടെയും ഉണ്ട് ഈ കുഴൽമന്ദത്തും ഉണ്ട് വീട് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ഒന്നും ഇല്ല വെള്ളത്തിന്റെ സൗകര്യങ്ങൾ ഉണ്ട് അതേപോലെ വേറെ ബുദ്ധിമുട്ട് ഒന്നും ഇല്ല അവിടത്തന്നെ അടുത്ത് തന്നെ ഹോസ്പിറ്റൽ ഉണ്ട് ഇലക്ട്രിസിറ്റി ഓഫീസ് അവിടെ ആണ് പഞ്ചായത്തും സേം തന്നെയാണ് സെൻറ്ററിൽ തന്നെ ആണ് നമുക്ക് നടന്ന് പോയി വരാൻ ഉള്ള ദൂരം ഒക്കെ ഉള്ളൂ അത് ഇരുപത് ഇരുപത് സെന്റ് സ്ഥലം ആണ് അത് ചുറ്റും മതിൽ ഒക്കെ ഉണ്ട് ഒരു പ്രശ്നം ഇല്ല പിന്നെ നമുക്ക് അത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് നിലേന്റെ ഇത് പ്ലാൻ ആണ് ഇട്ടിരിക്കുന്നത് ഇപ്പം ഒരു നിലയേ ഉള്ളൂ ഇനി വേണമെങ്കിൽ ഭാവിക്ക് നമുക്ക് അത് രണ്ട് നില ആക്കാം ആ രണ്ട് നില കയറ്റാം അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യാം അത് നിങ്ങൾക്ക് ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ഉള്ള പോവണം അവിടെ ഉള്ള ഒക്കെ ചുറ്റുപാടും താമസിക്കുന്നത് ഒക്കെ ഇതേപോലെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഡോക്ടേഴ്സ് എൻജിനിയേഴ്സ് അങ്ങനെ ഉള്ള വർക്ക് ചെയ്യുന്ന നല്ല രീതിയിൽ ഫാമിലി സിറ്റുവേഷനിൽ ഉള്ള ആൾക്കാർ ഒക്കെ ആണ് ചുറ്റും താമസിക്കുന്നത് അവിടെ പൊതുവെ ഉള്ളതൊക്കെ ഇല്ല ഇല്ല ഇല്ല ഒരു ശല്യവും ഉണ്ടാവില്ല ശല്യം ഒന്നും ഉണ്ടാവില്ല ഡീസന്റ് ആയിട്ടുള്ള പ്രദേശം ആണ് അവിടെ അങ്ങനെ ഒക്കെ ആണ് അവിടുത്തെ കാര്യങ്ങൾ വരുന്നത് അപ്പം നമുക്ക് അവിടെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പം ഇല്ല അത് നമുക്ക് മെയിൻ നെഗോഷ്യബിൾ ആണ് നോക്കാം എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് റെഡി ആക്കാം ഓക്കെ അല്ലേ അപ്പം അത് നമുക്ക് നോക്കാം അല്ലേ ഓ ഓക്കെ ഓക്കെ ശരി ശരി